കൃഷിക്കായി നമ്മൾ പലതരം ഉപകരണങ്ങൾ നമ്മൾ നിരത്തിൽ കാണാറുണ്ട് ട്രാക്ടറുകൾ ടില്ലറുകൾ കൊയ്ത്ത് മെഷീനുകൾ അതുപോലെ തന്നെ ആ ഇപ്പോൾ എന്നും വീട്ടിലുപയോഗിക്കാനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അതായത് കോടാലി വെട്ട് കത്തി കൈക്കോട്ട് കിളക്കാനും മറ്റിനുമായി എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് കൈക്കോട്ട് തടമെടുക്കുന്നതിനും വാഴക്ക് തടമെടുക്കുന്നതിന് വെള്ളം മുക്കിയൊരു ഒരു വരിയിലൂടെ പോകുന്നതിന് അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒരു ഉപകരണം തന്നെയാണ് അത് അതുപോലെ തന്നെ കൃഷിക്കായി നമ്മൾ പല പൈപ്പുകളും അതും അങ്ങനെ പല പല കാര്യങ്ങൾ വെള്ളം കറക്റ്റ് ആയി എല്ലാ ചെടികളിലേക്കും എത്തിക്കുന്നതിനായി ഒരുപാട് ഉപകരണങ്ങൾ നമ്മളുപയോഗിക്കുന്നുണ്ട് നിലമുഴുത് മറിക്കാനായി ഉഴുത് മറിക്കാനായിട്ട് അങ്ങനെ അങ്ങനെയും ഇങ്ങനെയുമൊക്കെയായി ഒരുപാട് ഉപകരണങ്ങൾ നമ്മൾ കൃഷിക്കായി ഉപയോഗിക്കുന്നു ഓരോന്നും വളരെ അധികം പ്രയോജനം ഉള്ളതാണ് അതിനായി നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ കൊയ്ത്തു മെഷീൻ വന്നതിന് ശേഷം വളരെ സുഗമമായി കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു ഒരു നിലത്തിലെ നെല്ലുകളും അതുപോലുള്ള ധാന്യങ്ങളും കൊയ്യാനായി സാധിക്കുന്നു അല്ലങ്കിൽ ആളുകൾ ഒരുപാട് സമയം നിന്ന് വെയിലത്തൊക്കെ പണിയെടുത്ത് മാത്രം അത്രയും ദിവസത്തിൻ്റെ ദിവസങ്ങളുടെ കണക്കാണ് അത്രയും നാളുകൾ ജോലി ചെയ്താൽ മാത്രം കിട്ടുന്ന ഒരു കാര്യം വളരെ എളുപ്പത്തിൽ ചെയ്ത് തരുന്നു അതുപോലെ നിലം ഉണക്കുന്ന മെഷീൻ അതുപോലെ ഇപ്പം ചവിട്ടാനും മെതിക്കാനും ഉണക്കാനും ഒന്നും ഇപ്പോൾ അങ്ങനെ ആളുകളുടെയും സമയത്തിൻ്റെയും ഒന്നും ആവശ്യം പോലും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ വളരെ ചുരുങ്ങിയ ആളുകളെയൊക്കെ വെച്ച് വളരെ സമയം ലാഭം കൊണ്ടും എനർജി ലാഭം കൊണ്ടും അങ്ങനെ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാനായി നമുക്ക് സാധിക്കുന്നു അപ്പോൾ കൃഷിയിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കും ഇതുപോലുള്ള പുതിയ പുതിയ കൃഷി രീതികളും അങ്ങനെ നല്ല ഉപകാരങ്ങളും മറ്റും കൊണ്ടു വരുന്നത് വളരെ നല്ല നല്ലതാണ് ഇപ്പോൾ എല്ലാവരും കൃഷിയിൽ നിന്നും വേറെ വേറെ ജോലികളിലേക്ക് മാത്രം എത്തി നോക്കുമ്പോൾ കൃഷിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് വരാൻ ആഗ്രഹിക്കുന്നവർ ഭക്ഷണത്തിനൊക്കെ ഈ ധാന്യങ്ങൾ തന്നെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നാലോചിച്ച് നല്ല നല്ല ഉപകരണങ്ങളുണ്ടാക്കുകയും അല്ലെങ്കിൽ ഉപകരണങ്ങളിൽ പുതിയ ചില മാറ്റങ്ങൾ കൊണ്ട് വന്ന് അത് കൂടുതൽ കൂടുതൽ കാലം നിൽക്കുന്നതും അതുപോലെ കൂടുതൽ എഫിഷ്യൻറ് ആയി കാര്യങ്ങൾ ചെയ്യുന്നതുമാക്കി മാറ്റുമ്പോൾ കൃഷി കുറച്ചുംകൂടി എളുപ്പമാക്കി മാറുന്നു